ആദ്യമായി പാട്ടു പാടാൻ താത്പര്യം തോന്നിയ എപ്പോഴാണെന്നു ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെയാണ് കുഞ്ഞായിരുന്നപ്പം എപ്പോഴോ സ്കൂളിൽ സംഘം പാട്ട് സംഘഗാനം പാടാനായിട്ട് എല്ലാരും കൂടി വരാൻ പറഞ്ഞ് അങ്ങനെ കൂ കൂടെപ്പോയി അങ്ങനെ പാട്ടു പാടിയതാണ് ശെ അത് എന്താ പറയുന്നത് നല്ല രസമായിരുന്നു അങ്ങനെ ചുമ്മാ പാട്ട് പാടുന്നൊരു രസമല്ലേ എല്ലാവരും കൂടി നിന്നു പാട്ടൊക്കെ പാടണം അല്ലെങ്കിലും ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ എന്തു ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഒരു ഇതുണ്ടല്ലോ ഒരു വൈബുണ്ടല്ലോ അതു പോലെ അല്ലാണ്ട് അങ്ങനെ ഞാൻ ഞാനാദ്യമായിട്ട് പാട്ടു പാടിയത് അതു കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഒരു പദ്യം ചൊല്ലലിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പണ്ടു സ്കൂളിൽ പഠിക്കുമ്പോൾ ജില്ലാതലങ്ങളിൽ ജില്ലയിലൊക്കെ പോയി കലോത്സവത്തിനൊക്കെ പോവൂലെ അങ്ങനെ പാട്ട് പാടിയിട്ടുണ്ട് അല്ലാണ്ട് ഇതിലേക്കു നയിച്ചെന്നു പറയുമ്പം പാട്ടൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലെ എപ്പോഴും ഇങ്ങനെ കേട്ടു കേട്ടു നമ്മളെപ്പോഴും മൂളിപ്പാട്ടു പാടി അതിന് ഒരു മോട്ടീവെന്നു പറയാനായിട്ട് കുഞ്ഞിലേ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി എല്ലാവരും വലിയ പാട്ടൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഇല്ലെ അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് അതല്ലാണ്ട് എന്താ പറയുക അങ്ങനെ സ്കൂളിലൊക്കെ പോയി അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടുന്ന കാണുമ്പോൾ സ്റ്റേജിലൊക്കെ കയറി കലോത്സവത്തിനൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ പാടണമെന്നൊക്കെ തോന്നില്ലെ അങ്ങനെ പിന്നെ കുഞ്ഞിൽ ആറിലൊക്കെ പഠിക്കുമ്പോൾ പാട്ടു പഠിക്കാനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിക്കാൻ പോയിട്ടൊക്കെ ഉണ്ട് മുഴുവൻ മുഴുവൻ പഠിച്ചിട്ടില്ല പക്ഷേ പക്ഷേ കുറച്ചൊക്കെ പാടാനൊക്കെ അറിയാമായിരുന്നു അങ്ങനെ പോയി എനിക്കിഷ്ടമായിരുന്നു പാടാൻ ആർക്കാണ് ഇഷ്ടമില്ലാ പാട്ടു കേൾക്കാൻ ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്തവരാരാണ് ഉള്ളത് അത്രയും നല്ല പാട് പാട്ട് പാട്ട് പാടുമ്പോൾ നമുക്കെത്ര വിഷമിച്ചിരിക്കുകയാകട്ടെ അല്ലെങ്കിൽ നമുക്കാരോട് ദേഷ്യം വന്നിരിക്കുമ്പോഴാകട്ടെ നമുക്ക് സ്ട്രെസ്ടായിട്ടിരിക്കുന്ന സമയത്താകട്ടെ എല്ലാം പാട്ടു പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്തോന്ന് പ പാട്ടു പാടുമ്പോൾ അല്ലെ പാട്ടു കേൾക്കുമ്പം അതാസ്വദിക്കുമ്പം പകുതിയും പ്രശ്നങ്ങൾ നമ്മൾ വിട്ടു പോകുമെന്നു വേണെ പറയാം പല കാര്യങ്ങൾ നമ്മൾ മറക്കാനും സന്തോഷിക്കാനും ക്കെ പാട്ടൊരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട് പാട്ടെന്നു പറയുന്നത് പാട്ടില്ലാത്തൊരു ലോകാലോചിച്ചു നോക്ക് നമുക്ക് മടുപ്പായിരിക്കും അല്ലയോ അതെ പാട്ട് ഇല്ലാത്തൊരു ത്ന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് അല്ലേ അതെ പാട്ടു വേണം പാട്ടാസ്വദിക്കണം നമ്മൾ സന്തോഷിക്കണം പാട്ടെന്നു പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് അതിനെ കുറിച്ച് ഒന്നും പറയാനായിട്ടില്ല പാട്ടെന്നു പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒത്തിരി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ മെൻ്റലി അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലി അങ്ങനെ നമ്മളെ ഒരുപാട് ഹെൽപ്പെയിന്നൊന്നാണ് പാട്ടു കേൾക്കുക അതിലേക്കു നയിച്ചത് അതൊക്കെത്തന്നെയാണ് ഇവിടെ വിഷമിച്ചിരുന്ന സമയത്തൊക്കെ പാട്ടു കേട്ടതൊക്കെത്തന്നെയാണ് എന്നെ ഇതിലേക്കു നയിച്ചതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ